ഇപ്പൊൾ പഠിക്കാൻ പോയത് കൊണ്ട് കാരണം എനിക്ക് കൂടുതല് നോളേജ് കിട്ടി അതായത് എഴുത്തിൻ്റെ കാര്യത്തിലാണേലും വായനയുടെ കാര്യത്തിലാണേലും ടീച്ചേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കത് വേണ്ട വിധത്തിലേക്കതൊരു പാഷനാക്കി പാഷനാക്കി കൊണ്ട് പോകാനും അത് എൻ്റെ എൻ്റെ ഉള്ളില് കഴിവിനെ മനസിലാക്കി അത് നല്ലൊരു രീതിയില് കൊണ്ട് പോകാനും എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട് അത് കൊണ്ട് നേരെ മറിച്ചായിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ കൊണ്ട് പോകാൻ പറ്റില്ലായിരുന്നു ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് എല്ലാം എഴുത്താണേലും വായന ആണേലും എൻ്റെ ഉള്ള് എല്ലാം ഒരു ഇതും നല്ല അടിപൊളിയായിട്ട് കൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്